ഞാൻ ഡ്രസ്സ് കൈകൊണ്ട് നനക്കാറുമുണ്ട് വാഷിങ്ങ് മെഷീനിലും ഇടാറുണ്ട് സാധാരണ വീട്ടിലിടുന്ന ഉടുപ്പും അതുമൊക്കെ ഞാൻ വാഷിങ്ങ് മെഷീനിലിട്ടാണ് നനക്കാറ് അത് ഒരു ആഴ്ച കൂട്ടിവെച്ചിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടു നനക്കും അല്ലാതിപ്പം പുറത്തിടുന്ന ഉടുപ്പോ വളരെ നമുക്കു സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട തുണികളുണ്ടെങ്കിൽ അതിനെ കയ്യിൽ വെച്ചാണ് ചെയ്യാറ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ടറ്റ് എന്നു ഉദ്ദേശിച്ചാൽ സർഫ് എക്സലിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ സൺ ലൈറ്റിൻ്റെ ലിക്വിഡോ ഒക്കെയാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ് പിന്നെ ഓരോ കാലാവസ്ഥയനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ടെറസ്സിൽ തന്നെ ആഷേലിട്ട് ഉണക്കാറുണ്ട് അല്ലാതെ മഴയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അകത്തു തന്നെ ഒരഴ കെട്ടി ഫാനിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യാറ് വെള്ളമൊക്കെ വളരെ അമിതമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല മിതമായിട്ടുപയോഗിക്കാൻ ഉപയോഗിച്ചാണ് തുണിയൊക്കെ കഴുകാറ്